എനിക്കൊരു പാൻ കാർഡ് ആവശ്യമായി വന്നാൽ ഞാനാദ്യം ചെയ്യുന്നത് സൈറ്റിൽ കയറി നോക്കും എന്നിട്ട് അതിനെ പറ്റി ഒരു ഗവേഷണം നടത്തി അതിൽ അതിലെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനാദ്യം ഉണ്ടെന്നു നമ്മള് നോക്കും ആദ്യം നമ്മൾ നമ്മുടെ പേരടിച്ച് നമ്മുടെ ഡീറ്റെയ്ലെല്ലാം ചെയ്ത് ചെയ്തതിനുശേഷം അതില് നമ് നമുക്കിപ്പോള് ഒരു ഇതില് കയറിക്കഴിയുമ്പോള് എന്താണെന്നുള്ളത് നമ്മടെ പേരടിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോളതിന് അതിന് ഇതായിട്ടുള്ളത് വരുമല്ലോ അപ്പോള് നമ്മളതനുസരിച്ച് ചെയ്തു കൊടുക്കുവല്ലേ അപ്പോള് നമ്മൾ സൈറ്റിൽ കയറുമ്പോള് നമ്മള പേരടിക്കും അത് കഴിഞ്ഞ് അവര് എന്താ വേണമെന്ന് ആവശ്യപ്പെടും അതു കഴിഞ്ഞ് അഡ്രസ്സ് കാര്യങ്ങള് ഫോൺ നമ്പര് നമ്മടെ ഡിറ്റെയ്ല് എല്ലാം വരും അതുമല്ല ഞാൻ അത് ചെയ്യാൻ അത് ഒത്തില്ല എങ്കിൽ ഏറ്റവും കൂടുതല് നമ്മള് സഹായം തേടേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിലാണ് ഏറ്റവും കൂടുതലിപ്പോള് ഡിറ്റെയ്ലായിട്ടിപ്പോള് ചെയ്യുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലാണ് പാൻ കാർഡ് കാര്യങ്ങളെല്ലാം അതിനുവേണ്ടി അപേക്ഷിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളാണ് ബിസിനസ്സ് ആരംഭത്തിന് വേണ്ടിയിട്ട് ഇപ്പോള് നമ്മള് ഒരു കാര്യം ചെയ്യാനാണെങ്കിൽ പാൻ കാർഡ് ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന ഒരു ഘടകം തന്നെയാണ് പാൻ കാർഡ് എങ്ങനെ അപേക്ഷിക്കാം എന്നതിനെ കുറിച്ച് നമ്മള്ക്ക് കൂടുതൽ അറിവുകൾ തരുന്നത് അപേക്ഷയെ അപേക്ഷിക്കുന്നതിനെ കുറിച്ച് നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്നാല് അവർ നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നു നമുക്ക് ആവശ്യമുള്ള നമ്മള് നമ്മുടെ പേര് പറയുമ്പോൾ അവരുടെ കമ്പ്യൂട്ടറിൽ അടിച്ചുകൊടുക്കുമ്പോൾ ഡിറ്റെയ്ലെല്ലാം കാര്യങ്ങളെല്ലാം വരും അപ്പോള് ഏറ്റവും നല്ല രീതിയിലൊരു ഉള്ളൊരു സ്ഥാപനമാണ് അക്ഷയ കേന്ദ്രം അപ്പോള് നമുക്ക് എന്തിനു ഏതിനും ഇപ്പോള് ഓരോരോ ഐ ഐഡൻറ്റി കാർഡുകളും കാർഡ്സുകളും കാര്യങ്ങളു എല്ലാം അക്ഷയ കേന്ദ്രങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് തരുന്നുണ്ട് ഇപ്പോള് നമുക്ക് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ തരുന്ന ഒരു നമ്മുടെ ഒരു ഏറ്റവും അടുത്ത ഒരു സ്ഥാപനങ്ങളിലൊന്നാണ് അക്ഷയ കേന്ദ്രം ഇപ്പോള് നമക്കിപ്പോള് ഒരു ബിസിനസ്സ് ആവശ്യം ആവശ്യത്തിന് നമ്മളിപ്പോള് ഇറങ്ങിത്തിരിച്ചാലേറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഇതാണ് പാൻ കാർഡ് പാൻ കാർഡില്ലാതെ നമുക്ക് ഒരു ബിസിനസ്സ് ബിസിനസ്സ് ആരംഭത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റത്തില്ല അപ്പോള് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യേണ്ട ഒരു ഘടകം തന്നെയാണ് പാൻ കാർഡ് പാൻ കാർഡില്ലാതെ ഒരു ബിസിനസ്സാരംഭം നമുക്ക് കുറിക്കാൻ പറ്റത്തില്ല നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ഇതാണ് അപ്പോൾ അക്ഷയ കേന്ദ്രത്തിൽ ചെന്നാൽ നമുക്കിത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും